ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമായ കോതകുളങ്ങര എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഭജനാസംഘമുണ്ട് ശ്രീഭദ്ര എന്നാണ് അവരുടെ സംഘത്തിൻ്റെ പേര് സംഘത്തില് എട്ട് പേരാണ് ഉള്ളത് അവരാണ് നമ്മുടെ ഇവിടത്തെ എല്ലാം എല്ലാ അമ്പലങ്ങളിലും ഉത്സവത്തിന് ഭജന നടത്തുന്ന ആൾക്കാര് അവിടെ അവര് ഒത്തുകൂടുന്നത് എന്ന് പറയുമ്പോള് വെംബ്ളിയം കോതകുളങ്ങര അവിടെ രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ ആണ് മേജർ മൈനർ ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഈ രണ്ട് സ്ഥലത്തും ഉത്സവത്തിന് ഭജന നടത്തുന്നത്ത് ശ്രീഭദ്ര എന്ന് പറയുന്ന ഭജന ട്രൂപ്പ് തന്നെയാണ് പിന്നേ അവര് കൂടുതലും ഉത്സവങ്ങൾക്കും പിന്നേ ശിവരാത്രി പിന്നെ വരുന്നത് സപ്താഹം എന്നിങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ആണ് അവര് കൂടുതലും ഒത്തു കൂടുന്നത്ത് വൈകുന്നേരം ആയിരിക്കും വൈകുന്നേരം ഒരു ആ ആറര മുതലായിരിക്കും ഭജന നടക്കുന്നത്ത് ഏകദേശം ഒരു എട്ട് എട്ടര വരെ നല്ല രീതിയിലുള്ളൊരു ഭജന അവര് നടത്താറുണ്ട് നല്ലൊരു പ്ലസൻറ്റ് ഫീലിങ് ആണ് നമുക്ക് ഭജനയിൽ പങ്കെടുക്കുമ്പോള് കിട്ടുന്നത് പിന്നെ വരുന്നേന്ന് പറയുമ്പോള് അവര് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്സ് ഓടക്കുഴല് തബല തമ്പുരു ഹാർമോണിയം എന്നിങ്ങനെയുള്ള ഉപകരണങ്ങൾ ആണ് അവര് കൂടുതലും ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത്ത് ഭജന എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഭക്തി ഭക്തിയിൽ നമുക്ക് ഭക്തി ഭക്തി തോന്നുന്ന ഒരു സമ്പ്രദായമാണ്